ആ ഓക്കെ സാർ ആ ഓക്കെ നമ്മളിപ്പോൾ ഡിവൈൻ സ്റ്റുഡിയോന്നു പറയുന്ന ഷോപ്പാണിത് ഇപ്പം നമ്മള് ഓൾമോസ്റ്റ് ഇപ്പോൾ വെഡിങ് ഷൂട്ട് എല്ലാം നമ്മള് ചെയ്യുന്നുണ്ട് സാറപ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പ്രീവെഡിങ് ഷൂട്ട് മൊത്ത് തൊട്ട് എല്ലാം ചെയ്യണം എന്നാണോ ആ വെഡിങ് വരെ ആ ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ നമുക്കിപ്പോൾ നോർമൽ ഫോട്ടോസ് മാത്രമാണേ ഒരു തേർട്ടീൻ തൗസൻറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും മുപ്പതിനായിരം രൂപയാണ് മാസം ഛേ മാസം എന്നു മുപ്പതിനായിരം രൂപ തൊട്ടാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് വീഡിയോയും കൂടെ ഇപ്പം നമുക്ക് നോർമൽ ക്യാമറയിൽ വീഡിയോഗ്രാഫിയും കൂടെ ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റി തൗസൻറ് ആ ഒരു ബഡ്ജറ്റൊക്കെയാണ് വരിക പിന്നെ നമുക്ക് ഹെലിക്യാമ് കാര്യങ്ങള് അങ്ങനെയൊക്കെ നോക്കിയിട്ട് വലിയ വലിയ രീതിയിൽ ചെയ്യാനാണെങ്കിൽ ഒരു ഒന്നൊന്നരലക്ഷം രൂപേൻ്റെ വരെ നമ്മള് ചെയ്തു കൊടുക്കുന്നുണ്ട് മ് നോർമല് ഓക്കെ ആ ഓക്കെ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങള് ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു സാറിന് ഒരു ഏകദേശം ഒരു ബഡ്ജറ്റ് ഇതായിട്ടുള്ളത് കാണിച്ചു തരാം അപ്പം സാറിനതിനകത്തു പറ്റുന്ന ബഡ്ജറ്റിൽ ഏതാണോ ഉള്ളത് അതു നോക്കിയിട്ട് നമ്മളോട് പറയുവാണേ നമ്മള് കറക്റ്റ് ആയിട്ട് ചെയ്തു തരാം സാർ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എപ്പോൾ ഓവർ റേറ്റൊന്നും വേണ്ട ഓക്കെ അപ്പം നമ്മള് ഏകദേശം ഒരു ബഡ്ജറ്റ് സാറിന് കാണിച്ചു തരാം എന്നിട്ട് സാറത് നോക്കിയിട്ട് നമ്മളോട് പറഞ്ഞാൽ മതി വീഡിയോഗ്രാഫി ഒന്നുമില്ലേ ഓക്കെ ആ ഓക്കെ അപ്പോൾ നമുക്കങ്ങനെ നോക്കിയിട്ട് സാറിന് ഏകദേശം ഒരു ബഡ്ജറ്റ് ഞാൻ പറഞ്ഞു തരാം അപ്പം സാറത് നോക്കിയിട്ട് നമുക്ക് പറ്റുമോന്നു നോക്കിയിട്ട് പറഞ്ഞാൽ മതി അപ്പം നമ്മളതിന് അനുസരിച്ചു എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു ചെയ്തു തരാം സാർ ആ ഓക്കെ പ്രീവെഡിങ് സാറൊരു ഡേറ്റ് ഫിക്സ് ചെയ്തോ നമുക്കത് എന്നാന്നു വെച്ചാൽ നമ്മള് ചെയ്തു തരാം മ്

ഓക്കെ സാറ് ഡെസ്റ്റിനേഷൻ അങ്ങനെന്തെങ്കിലും ചൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഓക്കെ ഞമ്മക്കിപ്പോൾ ഉള്ളതില് അത്യാവശ്യം നല്ല സ്ഥലങ്ങളും നമ്മള് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം അതിലേതിലും വേണേൽ നിങ്ങള് ചൂസ് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞാൽ മതി അതില് നമുക്ക് അറേഞ്ച് ചെയ്തു തരാൻ പറ്റും മ് ഓക്കെ ഓക്കെ അതു ഞാൻ അറേഞ്ച് ചെയ്തു തരാം അത് നമുക്ക് നേരിട്ട് സംസാരിക്കാം സാർ നമുക്കിതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഏകദേശം നോക്കിയിട്ട് പറയാം എമൗണ്ടും കാര്യങ്ങളുമൊക്കെ ഫിക്സ് ചെയ്തിട്ട് മ് ഓക്കെ ഓക്കെ സാർ എന്തായാലും വന്നാൽ മതി ഓക്കെ ഓക്കെ സർ